ആ ഹലോ

അ കേൾക്കാം പറഞ്ഞോ ഹലോ ഇതാരായിരുന്നു

അതെ അതെ അതെ അതെ ഇത് സെൽടെക് മൊബൈൽ ഷോപ്പ് ആണ് അടിമാലിയിൽ അടിമാലി അ ആ ഓക്കെ മേ ഓക്കെ മാഡം ഇപ്പോൾ ആ മോഡൽ നമ്മുടെ സ്റ്റോക്കില്ല ആവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ അത് വരുത്തിക്കാം അതിപ്പം മാഡം ഉറപ്പ് പറഞ്ഞ് ഓർഡർ വേണമെന്നുള്ളത് ഉറപ്പ് പറഞ്ഞ് ഒരു ചെറിയ തുക അഡ്വാൻസും കൂടി ചെയ്യുവാണെങ്കിൽ നമ്മളത് ഒരു അഞ്ചു ദിവസത്തിനുള്ളിൽ മാക്സിമം ആണ് കേട്ടോ അഞ്ചുദിവസം മാക്സിമം ആണ് ആ ഏതായാലും ടു ഓർ ത്രീ ഡേയ്സിനുള്ളിൽ എത്തിക്കാം അ ഡൌൺ പേയ്മെന്റ് ഉണ്ട് അത് മാഡത്തിന് ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് എന്തേലും ഒക്കെ ഉണ്ടോ ഏതേലും എസ് ബി ഐ ടെയോ എന്തേലും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ കാർഡിൽ വേണമെങ്കിൽ ഇ എം ഐ ഇട്ടിട്ട് ചെയ്യാം അല്ലായെങ്കിൽ ക്യാ റെഡി ക്യാഷ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഏത് ഓപ്ഷൻ വേണമെങ്കിലും മാഡത്തിന് തിരഞ്ഞെടുക്കാം ഒന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇ എം ഐ ഇടാം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ലേലും നമുക്ക് കുറച്ചു പൈസ ഇട്ടിട്ട് ബാക്കി ഇ എം ഐ ഇട്ടു ചെയ്യാം അല്ലായെങ്കിൽ ക്യാ ഫുൾ ക്യാഷ് കൊടുത്ത് എടുക്കുവാണെങ്കിൽ അങ്ങനെയും എടുക്കാം ഇപ്പോൾ പിന്നെ മാ ഇപ്പോൾ പിന്നെ മാ ഈ ഈസ്റ്ററോട് വിഷു ഈസ്റ്റർ അടുക്ക അനുബന്ധിച്ച് ഇപ്പോഴാണെങ്കിൽ എന്തോ ഇച്ചിരി അല്പം വിലയിൽ വ്യത്യാസം ഉണ്ട് ഇത്തിരി ഒരു ഓഫർ നില്ക്കുന്നൊരു സമയം കൂടിയാണ്

അ അത് ചെയ്തു തരാം അപ്പോൾ ഇ എം ഐ ആയിട്ട് ചെയ്യുമ്പോൾ ആ മാഡം ഈ ഷോപ്പിൽ വരുമ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോത്തേനും മാഡത്തിൻ്റെ ബാങ്ക് പാസ്സുബുക്കിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി മറ്റേ റെസീതൊക്കെ ആയിട്ട് വരണം അത്രയും രേഖകളും കൂടെ നമുക്ക് വേണം പ്രൂഫിനായിട്ട് പിന്നെ മാഡത്തിൻ്റെ ഒരു ഫോട്ടോയും വേണം മാഡത്തിൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം

എന്തോ ഇല്ല ഇല്ലില്ല ആ ഇല്ല ഇല്ല ഇല്ല സിബിൽ അല്ല നമുക്ക് നമ്മള് ഇ എം ഐ ഇട്ടു കഴിയുമ്പോൾ നമ്മള് ഇ എം ഐ ഇടുന്നതിന് നമുക്കൊരു എഗ്രിമെൻറ്റൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അക ത്ത് നമ്മള് സിബിൽ നോക്കാറില്ല അ ഇതിന് നമ്മൾ ഇതിന് നമ്മൾ സിബിൽ അ അ ആ ഈ ഫോണെന്ന് പറയുമ്പം ഈ ഫോൺ ഇത് പല റേഞ്ചിലുണ്ട് അതായത് ക്യാമറ വ ക്യാമറ പല സൈസിലുള്ളത് അനുസരിച്ച് അതിൻ്റെ പിക്സൽ സൈസ് പിക്സൽ വലു ആ പിന്നെ അങ്ങനെ ഇതിനു കുറെ ഫീച്ചേഴ്സ് ഉണ്ട് ഏറ്റവും പുതിയ മോഡലാണ് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് അപ്പം മാഡത്തിന് ഇത് ഉണ്ടോ യൂനോ വിവിധ മോഡലുകളിൽ ഉണ്ട് മാഡം ഇപ്പോൾ ഷോപ്പിൽ വന്നിട്ട് ഏതു മോഡലാണെന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോഡലനുസരിച്ച് നമുക്ക് വില വ്യത്യാസം വരും

ഒരു ഇരുപതിനായിരം തൊട്ട് സ്റ്റാർട്ടിങ് റേറ്റ് വരും അപ്പം അപ്പം ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപതിനൊക്കെ ഇടയിൽ വരും അപ്പം ഇതിൻ്റെ ഒരു ഇതെന്നു പറഞ്ഞാൽ ഇതിന് അടിപൊളി ഫീച്ചേഴ്സാണ് നല്ല ഒരു ട്വൻറ്റി അ അതും കുഴപ്പമില്ലല്ലോ മാഡത്തിന് അഫൊർഡബിളായിട്ടുള്ള ഒരു പ്രൈസ് ആണല്ലോ മാത്രമല്ല മാഡത്തിന് ഇ എം ഐ ആണെങ്കിൽ അത് ഇട്ടുതരാംഇ എം ഐ ആണേൽ പോലും മാസം നമ്മളൊരു രണ്ട് ഒരു രണ്ടു വർഷം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇഇ എം ഐ ഇടുന്നത് ഒരു മാഡത്തിന് എങ്ങനെപോയാലും ഒരു മാസം തികച്ചും ന്യായമായ ഒരു തുകയല്ലേ അടയ്ക്കാൻ വരുന്നുള്ളു ഡൌൺ പേയ്മെൻറ്റ് നമ്മളത് നോക്കിയിട്ട് പറയണം മാഡം ഇവിടെ വന്നിട്ട് മോഡൽ നോക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പറയാനായിട്ട് ഏത് മോഡലാണ് എടുക്കുന്നത് എന്നുള്ളത്

പിന്നെ മാഡം തിരഞ്ഞെടുക്കുന്ന മോഡലനുസരിച്ചും വ്യത്യാസം വരും തുകയിൽ വ്യത്യാസം വരും ഏകദേശം പതിനയ്യായിരത്തിനും ഇരുപതിനും ഇടയ്ക്ക് ഉള്ള റേഞ്ചിൽ ഇതിൻ്റെ വിവിധ മോഡലുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിളാണ് അപ്പം ഇപ്പോൾ നെലവിൽ സ്റ്റോക്കില്ല മാഡം വന്നു കണ്ട് രണ്ടുദിവസത്തിനുള്ളിൽ തന്നെ കമ്പനി ഇവിടെ കൊണ്ട് തരും പിന്നെ ഇതിൻ്റെ ഒരു സെർവീസിങ്ങും ഇവിടെ തന്നെ നമ്മൾ ചെയ്തു തരും കേട്ടോ നമുക്ക് സെർവീസിങ്ങും ഇവിടെത്തന്നെ അവൈലബിളാണേ ആ അതെ അതെ അതെ മാഡത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമ്മള് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ടിൽ നിന്ന് ആൾറെഡി മാഡം എംപ്ലോയീ ആണോ എവിടെയാണ് ജോലി ചെയ്യുന്നത് എവിടെയാണ് എംപ്ലോയീ അല്ല അ അ എംപ്ലോയീ അല്ല അ എംപ്ലോയീ അല്ലെങ്കിലും നമ്മൾ ഡൌൺ പേയ്മെൻറ്റ് നമ്മൾക്കൊരു വിശ്വാസ്യതയുടെ പുറത്താണല്ലോ ഇത് കൊടുക്കുന്നത് ഇൻകെയ്സ് നമ്മൾ ഒരു തവണ എങ്ങാനും പേയ്മെൻറ്റ് മുടക്കിയാൽ അതിനൊരു ചെറിയ പലിശ ഈടാക്കും ചെറിയ ഒരു പലിശ ഈടാക്കും അങ്ങനെയാണ് അത് പോകുന്നത് അ ഓക്കെ മാം മാഡത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അ മാം ഷോപ്പിലെ നമ്പറൊക്കെ അറിയാമല്ലോ അല്ലെ അ ഓക്കെ താങ്ക്യൂ